ഹലോ ആ എന്താ അളിയാ വിശേഷം സുഖമാണെടാ പിന്നെന്തായി കളി കാണാൻ പോയോ നീ ഖത്തറിലേക്ക്

മെസ്സി മെസ്സി കപ്പ് കൊണ്ടുപോയി എങ്ങനെ ഉണ്ടായിരുന്നു കളി കാണാൻ പോയിട്ട് ആ എടാ ഞാനും വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് മെസ്സി സീൻ കളിയായിരുന്നു ആ ലാസ്റ്റ് ആ പെനാൽറ്റി വന്നപ്പോൾ ടെൻഷനായി ഓ ഒരു രക്ഷയുമുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഹാഫ് മെസ്സി തുക്കിയെങ്കിലും സെക്കൻറ് ഹാഫിൽ അവർ കയറി വന്നു ആ ഞാനും വിചാരിച്ചു പിന്നെ പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു നാട്ടിൽ പരിപാടിയൊക്കെയായിട്ട് ഞങ്ങൾ അവിടെ അടുത്തുതന്നെ ഞങ്ങളുടെ അവിടെ ഒരു ഏരിയ മൊത്തം മറ്റേ മുസ്ലീമ്സിൻറെ ഖത്തറുക്കാരായിരുന്നു അപ്പോൾ അവർ അവരുടെ വീട് അങ്ങനെ പെയിന്റൊക്കെ അടിച്ച് ഖത്തറിന്റെ ഫ്ലാഗൊക്കെ പെയിന്റ് അടിച്ച് ഒരു രണ്ടു മാസം ഇവിടെ ഫുൾ വലിയ സ്ക്രീനൊക്കെ വച്ച് അകെ പരിപാടിയായിരുന്നു ആ ഇവിടെയും ഉണ്ടായിരുന്നു മെസ്സി ഫാൻസിൻ്റെ കുറേ കോണ്ട്രിബൂഷൻസും അവസാനം കുറേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത പ്രാവിശ്യം അടുത്ത പ്രാവിശ്യം ചാൻസുണ്ടല്ലോ അവർക്ക് കുഴപ്പമില്ല ഒരാൾക്കല്ലേ കിരീടം കിട്ടുള്ളു ആ അടുത്ത കൊല്ലം ഇനി മെസ്സി ഉണ്ടാവില്ല കളിയ്ക്കാൻ അങ്ങനെ വീട്ടിൽ സുഖം തന്നെ സുഗമായിരിക്കുന്നു ആ എടാ വേറെ കുഴപ്പം ഒന്നുമില്ലല്ലോ അവിടെ ശരി ശരി അപ്പോൾ ഇനി കാണാം ഓക്കെ ഓക്കെ